ഇന്ത്യയിലിപ്പോൾ പ്രധാനമന്ത്രി ഇരിക്കുന്ന പാർട്ടി ഏതാണെന്നു വച്ചാൽ ബി ജെ പിയാണ് അതിൽ പ്രധാനമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദിയാണ് നേതാവ് കേരളത്തിൽ ഉള്ള പാർട്ടി എന്നു പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉയർന്ന നേതാവ് തന്നെയാണ് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തൊട്ടുതാഴെ കുറെയേറെ മന്ത്രിമാർ ഉണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് പിന്നെ എം എം മണി അങ്ങനെ കുറെ കുറെ കുറേ ഏറെ നായകന്മാർ കമ്മ്യൂണിസം കമ്മ്യൂണിസ്റ്റ് എന്നൊരു പാർട്ടിയിൽ ഉണ്ട് പിന്നെ ഇവിടെ വരുന്ന വേറൊരു പാർട്ടിയാണ് കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിലുള്ള മുഖ്യ നേതാവ് ആയിട്ടുള്ള ഉമ്മൻചാണ്ടി ഈയിടെ മരിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ ഇപ്പോൾ പുതിയ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്